ഞാനും എൻ്റെ എനിക്ക് തീരേ ഇഷ്ടപെടാത്ത ഒരാളുമായിട്ടാണ് എനിക്ക് ആദ്യമായിട്ട് ട്രെയിനിയായിട്ട് ജോലിക്ക് കേറേണ്ടിവന്നത് പക്ഷേ നമുക്ക് നമുക്ക് നമുക്ക് വേണ്ടിയാണല്ലോ ജോലിയെടുക്കേണ്ടത് എന്നോർത്തപ്പോൾ എത്രയോക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഞാനാ ജോലിയിൽ തുടർന്നു കാരണം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് നമ്മള് നമ്മള് തീരെ ചേരാത്ത രണ്ടുപേരായിരുന്നു എന്നിട്ടും മാക്സിമം ഞാൻ പിടിച്ചു നിന്നിട്ടാണ് അവളുടെ കൂടെ വർക്കുചെയ്തത് കാരണം ആ ഒരു മാസം എന്നുപറയുന്നത് നമുക്ക് വളരേ വളരേ വേണ്ടപ്പെട്ട ഒരു മാസമായിരുന്നു കാരണം അതില് കഴിഞ്ഞാലാണ് നമുക്ക് ജോലി ഉറപ്പാണെന്ന് നമുക്ക് പറയാൻ സാധിക്കൂ അതുകൊണ്ട് കുറേ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അവളുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തത് കുറേ അവള് കുറേ ദ്രോഹിക്കാൻ നോക്കി എന്നാലും ഞാൻ ഞാൻ ഞാൻ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് അവളുടെ കൂടെ വർക്ക് ചെയ്തു കുറേ കുറേ കാര്യങ്ങള് അവള് എന്നെ എന്നെക്കുറിച്ച് കുറേ കാര്യങ്ങൾ കുറെപേർക്കു പറഞ്ഞുകൊടുക്കുകയും അങ്ങനെ കുറേ സംഭവം ഉണ്ടായി ഞാൻ അതൊന്നും മൈൻ്റക്കാൻ നിന്നില്ല കാരണം എനിക്കുവേണ്ടിയാണ് ഞാൻ പണിയെടുക്കുന്നത് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയാണ് പണിയെടുക്കാവ് പണിയെടുക്കുന്നത് എന്നോർത്ത് ഞാൻ പിടിച്ചുനിന്നു